കേരളത്തിലെ കായിക മേഖല ഇന്ന് വളരെയേറെ മുന്നേറി കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും മികവുറ്റ പ്രധാനപ്പെട്ട കളികളിൽ ഒന്ന് ഇന്ന് ഫുട്ബോൾ അതുപോലെ തന്നെ ക്രിക്കറ്റ് അതുപോലെ തന്നെ കബഡി അങ്ങനെയുള്ള നിരവധി പണ്ട് കാലങ്ങളിൽ നാടൻ പന്ത് കളി അങ്ങനെയുള്ള നിരവധി കളികൾ കായിക മേഖലകൾ കേരളത്തിന് ഇന്നുയർന്ന് വരികയാണ് എന്നാൽ ചില പ്രശ്നങ്ങളവിടെ സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട് കുട്ടി ചെറിയ കുട്ടികൾ മുതൽ വലിയ മുതിർന്നവർ വരെ കാണിക്കുന്ന ചില പ്രശ്നങ്ങൾ ഈ കായിക മേഖലയിൽ വളരുന്നു ഇന്നും വളർന്നു വരുന്നുണ്ട് അത് ഒന്ന് ഈ ചൂതാട്ടത്തിൻ്റെ അല്ലങ്കിൽ ഈ അല്ലെങ്കിൽ ഈ വാദം വാദ് വെപ്പുളള കളികളാണ് അതായത് ഇത്ര രൂപ പൈസ വെച്ചിട്ടുള്ള കളികൾ പക്ഷേ എന്നാൽ അത് വളരെ ഏറെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ അതുണ്ടാക്കുകയും വാശിയേറിയ മത്സരങ്ങള് ആ വാശിക്കൊടുവിൽ വ്യക്തിപരമായ പ്രശ്നങ്ങളും വ്യക്തി ഹത്യകളും അതുപോലെ തന്നെ നിരവധി അക്രമങ്ങളും ഈ കായിക മേഖലകളിൽ സംഭവിക്കുന്നുണ്ട് ഈ വ ചൂതാട്ടത്തിൻ്റെയും വാതുവെപ്പിൻ്റെയും കാര്യങ്ങള് വരുമ്പോൾ പൈസ വെച്ചാണ് ഇവര് വാത് വെച്ച് കളിക്കുന്നത് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളതിലൂടെ അവ അവിടെ ഉണ്ടാകുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത് നടപ്പാക്കുന്നത് മനുഷ്യൻ്റെ സ്വഭാവം തന്നെ മൃഗീയമായി മാറുന്നത് അതുകൊണ്ട് ഇത് നടപ്പാക്കുന്നത് നടപ്പിലാകുന്നത് ഏറ്റവും നമുക്ക് അനുകൂലിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന് വാത് വെക്കാതെ പണം വെച്ചിട്ടുള്ള വാശിയേറിയ കളികൾ എല്ലാമൊരു ഫ്രണ്ട്ലി മാച്ചായി സൗഹാർദപരമായി നമ്മുടെ കായിക മേല മേഖലകള് വളർന്നാൽ എത്രത്തോളം നല്ല രീതിയിൽ നല്ല ബിഹേവിയറോടു കൂടി നല്ല ഇടപെടലോടെ വളരുവാനായിട്ട് എത്രത്തോളം നല്ല രീതിയിൽ സാധിക്കും അതുപോലെ തന്നെ നല്ല ഒരു കായിക ഉൻമേഷമുള്ള ഒരു ജനതയായി നമ്മുടെ ഈ കേരളത്തെ നമുക്ക് തിരഞ്ഞെടുക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ അപ്രകാരം നല്ലൊരു പ്രതിരോധം നല്ലൊരു നിയന്ത്രണം അത് സൃഷ്ടിച്ച് ഇനി വാത് വെപ്പ് ഇല്ലാതാക്കണമെന്ന് അത് നടപ്പാക്കി നല്ല കായിക മേഖല നല്ല ആരോഗ്യമുള്ള സമൂഹമായി കേരളം മാറട്ടെ എന്നാശംസിക്കുന്നു